എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരനെന്ന് പറഞ്ഞാൽ പിന്നെ യേശുദാസ് അദ്ദേഹം എന്താ വളരെയധികം നല്ല രീതിയിലുള്ള ഒരു മികച്ച ഒരു ഗായകനാണ് എനിക്ക് നല്ല ഭയങ്കരായിട്ട് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വളരരെയേറിയ പാട്ടുകൾ പ്രത്യേകമായിട്ടുള്ള താളങ്ങളും നമ്മളെയെല്ലാം മലയാളികളുടെ മനസ്സിനെ കീഴടക്കിയ ഒരു പാട്ടുകാരൻ ഒരു കലാകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ടുകളെനിക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടമാണ് നല്ല നല്ല പാട്ടുകളുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എനിക്ക് വളരെയധികം നല്ല രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഞാൻ കൂടുതൽ ആസ്വദിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നല്ല താൽപ്പര്യമുള്ള കൂട്ടത്തിലാണ് പാട്ടുകൾ പ്രത്യേകിച്ച് അതിൻ്റെ താൽപ്പര്യമാണ് അതിൻ്റെ കൂടെ യേശുദാസ് എന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുക എന്നുള്ളത് തന്നെ നമുക്കൊരു ഭാഗ്യം തന്നെയാണ് മലയാളികളുടെ മനസ്സിനെ കീഴടക്കിയ ഒരു അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെനിക്ക് വളരെയധികം ഇഷ്ടമാണ്